ഹലോ ടൂറിസ്റ്റ് ഗൈഡ് അല്ലേ ഞാൻ ഒരു അമേരിക്കൻ മലയാളി ആണ് എനിക്ക് കേരളത്തിലെ തെയ്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനു വേണ്ടി വിളിച്ചതാ

ആ എനിക്ക് ഈ വെക്കേഷൻ ഒന്ന് വന്നിട്ട് തെയ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യം ഉണ്ട് കേരളത്തിലല്ല ഞാൻ ഇപ്പോൾ പുറത്താണ് വിദേശത്താണ് നാട്ടിൽ കണ്ണൂരാണ്

കണ്ണൂർ ഇപ്പോൾ നമ്മുടെ തെയ്യത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ അറിയാമല്ലോ ഞാൻ ജനിച്ച് വളർന്നത് കണ്ണൂരാണ് ആ അപ്പോൾ കൂടുതൽ തെയ്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയൂല്ല അപ്പോൾ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഗൈഡിനെ വെച്ചിട്ട് അന്വേഷിച്ചാൽ കൂടുതൽ അറിയാൻ പറ്റുമല്ലോ ആ അപ്പോൾ എങ്ങനെ തെയ്യങ്ങൾ ഏതൊക്കെ തെയ്യങ്ങളാ ഇപ്പോൾ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്

ഈ സമയത്ത് വന്നാൽ തിരക്കെല്ലാം ഉണ്ടാവുമോ അവിടെ ഞാൻ കുറേ കാലമായി കണ്ണൂരിലൊക്കെ വന്നിട്ട് ഇപ്പോൾ അവിടെ ആരും ഇല്ല വീടൊക്കെ പോയി അപ്പോൾ എങ്ങനെ ഹോട്ടല് സൗകര്യമൊക്കെ ഉണ്ടോ എന്നാൽ ഞാൻ എന്നാൽ ഞാൻ നോക്കീട്ട് വിളിക്കാം ശരി ആ ശരി